ഞാന് കഴിഞ്ഞ ദിവസം ഓണ്ലൈനിൽ നിന്ന് ഒരു സാരി വാങ്ങിക്കുകയുണ്ടായി പക്ഷേ ഞാന് വിചാരിച്ചു ആ സാരി ഓലയിൽ നിന്ന് വരുമ്പോൾ മാറിപ്പോകുമായിരിക്കും എന്ന് എനിക്കൊരു ഭയമുണ്ടായിരുന്നു പക്ഷേ നമ്മൾ വാങ്ങിച്ച സാധനം നല്ല സാധനം തന്നെ ആയിരുന്നു നമ്മള് ഓഡർ ചെയ്ത സാനങ്ങള് തന്നെ അവര് നമുക്ക് കൊണ്ടുതന്നു നല്ല പാക്കേജ് ഒരു വിധത്തിലും ഒരു ഭയവും സംഭവിക്കാത്തത് നല്ല പാക്കേജെന്ന രീതിയില് നമുക്ക് ആ സാരി നമ്മളെ കയ്യില് കൊണ്ടെത്തിച്ചു നല്ലതായിരുന്നു ഇത്രയുംപോലും ഞാന് വിശ്വസിച്ചിരുന്നില്ല കയ്യിൽ കിട്ടിയപ്പോഴാണ് നമ്മള് പറഞ്ഞ സാധനം തന്നെയാണ് ഓഡറ് കിട്ടിയത് ഓഡറ് ചെയ്ത സാധനം നമുക്ക് കിട്ടുകയും ചെയ്തു അതില് ഞാന് അഭിമാനിക്കുന്നു